ഞാൻ ചെറുപ്പക്കാലത്തിലേ പാട്ട് പാടാൻ തുടങ്ങിയ ഒരാളാണ് കുഞ്ഞു നാളിലേ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഒന്നാണ് പാട്ട് പാടുക എന്നത് അത് എല്ലാ തരത്തിലുള്ള പാട്ടുകളും ഞാൻ പാടാറുണ്ട് ന്നെ ക്രിസ്തീയപരമായ പാട്ടുകളുണ്ട് ഹൈന്ദവ രീതിയിലുള്ള പാട്ടുകളുണ്ട് മുസ്സ്ലീങ്ങളുടെ രീതി പാട്ടുണ്ട് പിന്നെ അതുകൂടാതെ ചില സിനിമ പ ഗാനങ്ങൾ ലളിത ഗാനങ്ങൾ പദ്യപാരായണം ഇതുപോലെ എല്ലാ ഗാനങ്ങളും പാടി എനിക്ക് സ പല പല സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒരു ന ആ ഒരു പാടുമ്പോൾ ഒരു ഗാനം ആലപിക്കുമ്പോൾ അത് നമുക്ക് അ ഉണ്ടാവുന്ന അനുഭവം എന്ന് പറയുന്നത് വളരെ ഒരു പ്രത്യേക ഒരു തൃപ്തിപരമായ ഒരു ഇതാണ് നമുക്ക് ഉണ്ടാകുന്നത് അതുകൂടാതെ അതിനെന്ന് വെച്ചാൽ ഒരു ഗാ ഗാനം ആലപിക്കുമ്പോൾ അതിൽ ലയിച്ച് നിന്ന് പാടുക എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ മാനസികമായും ശാരീരികമായുമുള്ള നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇതെല്ലാം നമുക്ക് മാറിക്കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഒരു ഗാനം ആലപിക്കുക എന്നുള്ളത് പല സമയങ്ങളിലും ഇത് ഞാൻ ഇങ്ങനെ ആവർത്തിക്കാറുണ്ട് എൻ്റെ എന്തെങ്കിലും വിഷമ സംഭവം ഉണ്ടാകുമ്പോൾ സന്തോഷമുണ്ടായാലും ഞാൻ ആദ്യം പാ ചെയ്യുന്നതാണ് ഒരു ഗാനം ആലപിക്കുക എന്നുള്ളത് പിന്നെ ഒരു പിന്നെ പല പല സംഭവങ്ങൾ എനിക്ക് പിന്നെ ഏറ്റവും ഇതെന്ന് പറയുന്നത് ഏറ്റവും പിന്നെ ഒരു ഗാനം ഞങ്ങൾ പള്ളിയിൽ ക്രിസ്ത്യൻ ഞാൻ ക്രിസ്ത്യൻ ഗാനങ്ങളാണ് കൂടുതലും പാടാറുണ്ട് സ്കൂളുകളിൽ പിന്നെ സ്കൂളുകളിൽ സ്കൂളിലെ കൊയറിൽ ഉണ്ടായിരുന്നു അന്ന് തൊട്ടേ ഞാൻ കുഞ്ഞു നാൾ തൊട്ടേ

കണ്ണുനീർ ഇറ്റിറ്റു വീണു കാരണം എനിക്കത് ഭയങ്കര ഒരു ഇൻസ്പിരേഷൻ ആയിരുന്നു അതിന് ശേഷം കാരണം എൻ്റെ അധ്യാപകരും എൻ്റെ കൂട്ടുകാരും എൻ്റെ മാതാപിതാക്കളും എൻ്റെ ബന്ധുക്കളും എല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത് അതിൽ എനിക്കൊരു ഒരു പിന്നെ അഭിനന്ദനം കിട്ടുക എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു അത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊരു വേദീയിൽ അതെനിക്ക് നാ നെ ഏഴാ ആറാം ക്ലാസിൽ പഠിക്കുമ്പോഴായിരുന്നു ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിരുന്നത് പക്ഷേ അത് എൻറെ ജീവിതത്തിനെ ഇന്നുവരെയും മറക്കാത്തൊരു സംഭവമാണ് പിന്നെ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്കും ഞാൻ എപ്പോഴും പറഞ്ഞുകൊടുക്കും എങ്ങനെയാണ് നീ പാടുന്നത് എങ്ങനെയാണ് ഈ അനുഭവങ്ങൾ എല്ലാം ഓർക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങ സന്തോഷങ്ങളും എല്ലാം ഞാൻ പങ്കുവയ്ക്കുന്നത് ഒരു പ ഗാനത്തിലൂടെ ആയിരിക്കും എപ്പോഴും ഒരു മൂളിപ്പാട്ടെങ്കിലും ഞാൻ ആലപിച്ച് നടക്കാറുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കലാരൂപം ഒരു കലയാണ് ഈ ഗാനം ആലപിക്കുക എന്നുള്ളത് അതിൽ എനിക്ക് ഒത്തിരി കുട്ടികളുണ്ട് കുട്ടികളുടെ എനിക്ക് ശ് കുട്ടികളെ ഞാൻ പഠിപ്പിക്കാറുണ്ട് അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പല പല മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഇതിനെല്ലാം ഞാൻ ഒത്തിരി സന്തോഷവതിയാണ് പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് ആറാം ക്ലാസ്സിലെ സംഭവം പിന്നെ ഞങ്ങൾ പിന്നെ ഫൊറാന മത്സരത്തിൽ നടന്നപ്പോൾ ഒരു ഒരു കോമ്പറ്റീഷനിലും അന്നും ഒരു ഗാനം ആലപിക്കാൻ പറ്റി അന്ന് ഒത്തിരി പേർ ഉണ്ടായിരുന്നു ഒത്തിരിയേറെ നന്നായിട്ട് പാടുന്നവർ ഉണ്ടായിരുന്നു അതിലും എനിക്ക് സമ്മാനം കിട്ടി ഇതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് ഇപ്പോഴും ഞാൻ എൻറെയൊരു ഭാഗബാക്കായി കൊണ്ടുനടക്കുകയാണ് ഈ ഗാനം ആലപിക്കുക എന്നുള്ളത് അത് അത് അതിനെക്കുറിച്ച് എനിക്ക് നല്ല സന്തോഷപരമായ ഒരവസ്ഥ അവസ്ഥ നൽകുന്നൊരു സംഭവമാണ് ഈ ഗാനം ആലപിക്കുക എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് എൻ്റെ പല അനുഫവങ്ങളും സന്തോഷകരമായി പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ മാതാപിതാക്കൾ ആണെങ്കിലും പല പല എൻ്റെ ഗുരുക്കൻമാർ ആണെങ്കിലും എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് നന്നായിട്ട് പാടുന്നുണ്ട് നന്നായിട്ട് ഈ കഴിവ് മുന്നോട്ട് കൊണ്ടുപോവണം എന്ന് പറയുന്നത്